ഹോ ശുചിത്വമെന്ന് ശുചിത്വയജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ടോയെന്നു ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളും പരിസരവുമൊക്കെ വൃത്തിയാക്കാനൊക്കെ പോയിട്ടുണ്ട് അതുപോലെ സേവന വാരമെന്നും പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് എൻ എസ് എസ്സിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ ചുറ്റുപാട് വൃത്തിയാക്കാൻ അതുപോലെ പിന്നെ വീടിന്റെയും വീടിന്റെ പരിസരത്തെ ഒക്കെ വൃത്തിയാക്കാൻ അങ്ങനെയൊക്കെ പോയിട്ട് അത്യാവശ്യം പോയിട്ടുണ്ട് പിന്നെ ചുറ്റുമുള്ള പ്രദേശം എത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വൃത്തിഹീനമായിട്ടാണ് ഉള്ളത് ഒന്നാമത് വീടിന്റെ അടുത്തുതന്നെ അടുത്തടുത്ത് വീടുകളുണ്ട് അപ്പോൾ ആ ആ വീടുകളിൽ നിന്നൊക്കെ പോകുന്നൊരു ഒരു മെയിൻ ചാലായിട്ട് എല്ലാ വീട്ടിൽനിന്നും ബാത്ത്റൂമിൽനിന്നൊക്കെ പോകുന്ന വേസ്റ്റൊക്കെ വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന ഒരു ചാല ഒരു മെയിൻ ചാലാണ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒരു വീട്ടിന്റെ പുറകിലൂടെയാണ് ആ ചാല് ഒഴുകുന്നത് പക്ഷേ അത് നിർമ്മിക്കുമ്പോൾ നല്ല രീതിയിൽ നിർമ്മിക്കാത്തത് കൊണ്ടുതന്നെ പിന്നെ അധികം ഒഴുകിപ്പോകാതെ അത് ഒഴുക്ക് തടസപ്പെട്ട രീതിയിലാണ് കാണുന്നത് അത് കെട്ടിനിന്ന് പിന്നെ സ്മെൽ ചെയ്ത് വേസ്റ്റ് വെള്ളം വേസ്റ്റ് വെള്ളം സ്മെൽ ചെയ്താൽ അറിയാമല്ലോ വീടിന്റെ പുറക് തൊട്ട് പുറകിൽത്തന്നെ ആയതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ടാവും അതുപോലെത്തന്നെ ഈ ഈ ചെറിയ ചെറിയ പാറ്റകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറന്നു കളിക്കും പിന്നെ ഈ കൊതുക് കൊതുകുശല്യം വളരെ ബുദ്ധിമുട്ടാണ് കൊതുക് ശല്യമെന്ന് പറയുമ്പോൾ മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഇഷ്ടംപോലെ കൊതുകുണ്ട് പിന്നെ കൊതുകും അതുപോലെ സ്മെല്ലും പിന്നെ വേസ്റ്റ് ചാടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭാഗത്താണെങ്കിലും ചെറിയ ചെറിയ സ്ഥലം തീരെ സ്ഥലം കുറഞ്ഞ ഏരിയ ഈ ചെറിയ സെന്റ് ഭൂമിയുള്ള ആൾക്കാര് ചെറിയൊരു വീടെടുത്ത ചുറ്റുപാട് അത്ര ഉണ്ടാവില്ല അപ്പോൾ അവരുടെ വേസ്റ്റ് കളയാനും അതിന്റെ ഒന്നും ഒരു പിന്നെ ഒരു അർഹിക്കുന്ന പോലെത്തൊരു വേസ്റ്റ് ചാടാനുള്ളൊരു സൗകര്യമൊന്നുമില്ല ഇവിടെ അതുപോലെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുതന്നെ ഇപ്പോൾ വേസ്റ്റ് എടുത്തുപോകുന്ന വണ്ടികൾ എന്നൊക്കെ പറയുന്നത് അതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതൊക്കെ സ്ഥാപിക്കണമെന്നായിരുന്നു സ്ഥാപിക്കണം എന്നാണ് എന്റെയൊരു എന്റെയൊരു കാഴ്ചപ്പാടിൽ അതൊക്കെ കൊണ്ടുവരണമെന്നാണ് പിന്നെ മെച്ചപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെത്തന്നെ വേസ്റ്റ് കൊണ്ടുപോവാൻ മതി കാര്യമായൊരു ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം ഈ ഇവിടുള്ള ആൾക്കാർക്ക് അതുപോലെ പിന്നെ എന്താ പറയുക ഈ കൊതുക് ശല്യം അല്ലെങ്കിൽ ഈ മഴയത്തുണ്ടാവുന്ന പിന്നെ കിണറ്റിലൊക്കെ വെള്ളമിറങ്ങുന്നത് അതൊക്കെ ഒന്ന് പരിഹസിച്ചു കൊടുക്കണമെന്നാണ് എന്റെയൊരു പിന്നെ എന്റെയൊരു ഭാഗത്തുള്ളൊരു അഭിപ്രായം